എനിക്ക് ആദ്യം ഇഷ്ടമല്ലാതിരുന്നിരുന്നത് പറയുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വായിക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ബാലരമ പോലുള്ള പുസ്തകങ്ങളായിരുന്നു കാരണം ഞാൻ അത് വായിക്കലില്ലായിരുന്നു കാരണം നമുക്ക് അത് എന്താ പറയുക കുട്ടികളുടെ പുസ്തകമായിട്ടായിരുന്നു ഞാൻ അത് കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് നമ്മൾ അധികം അങ്ങനെ വില കൊടുത്തിരുന്നില്ല കാരണം വായിക്കാനുള്ള രീതിയിലുള്ള നമ്മൾ കൊടുത്തിരുന്നില്ല പക്ഷേ പിന്നീട് പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇതിലുള്ള ഒരു ചിത്രങ്ങ മുഖേനയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേയ്ക്ക് ശ്രദ്ധ ചെയ്താക്കിയത് പിന്നെ ഇത് വായിച്ചു തുടങ്ങിയതിൽ പിന്നെ എന്താ പറയുക ഇതിൽ ഓരോ കാർട്ടൂൺ ക്യാരറ്ററിനും അതിന്റേതായ ഒരു റോൾ ഉണ്ട് കാരണം അവർ കാണിക്കുന്നതെല്ലാം നമുക്ക് കറക്ട് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഫുൾ തമാശ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വായിച്ച് വായിച്ച് വായിച്ചാണ് അത് വല്ലാണ്ട് ഇഷ്ടമായത് കാരണം അത് അത്രയ്ക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ഇതാണ് അവര് ഇതിനകത്ത് ഇതാക്കുന്നത് കാരണം തമാശ രീതിയും തമാശ ആണെങ്കിൽ തമാശ അല്ലാത്ത എന്താ പറയുക ഓരോ എന്താ പറയുക ഓരോ ക്യാരറ്ററിനും ഒരേ അതിന്റേതായ ഒരു ഇത് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും ബെറ്റർ ആയിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്